ആ ഹലോ ഇതാരായിരുന്നു ആ അതേലോ ഇതാരാ

ആണോ എന്ത് ക്യാറ്റായിരുന്നു ആ പേർഷ്യൻ ക്യാറ്റല്ലേ നിങ്ങൾ രണ്ട് ദിവസായിട്ട് അതിന് എന്ത് ഫുഡാ കൊടുത്തുകൊണ്ടിരുന്നത് ആ ഓക്കേ ഓക്കേ

ആ ഇത് എത്ര ദിവസമായി ഫുഡ് കഴിക്കാഞ്ഞിട്ടിപ്പം ആണോ ഇതിനിങ്ങനേ രോമം കൊഴിച്ചലോ അല്ലേൽ വേറേ എന്തേലും വൈറസ് ബാധിച്ചപോലേ അങ്ങനേ എന്തേലും പ്രശ്നങ്ങളുണ്ടോ ശർദ്ദിക്കോ അങ്ങനേ എന്തേലും ചെയ്യുന്നുണ്ടോ ആണോ ഇപ്പോൾ കുറച്ചായിട്ട് കൂടുതലായിട്ട് കൊഴിയുന്നത് വല്ലോണ്ടോ ആ ശർദ്ദിക്കുന്നുണ്ടോ പൂച്ച ആണോ ആ ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുവാണോ ഇപ്പോഴും ആക്റ്റീവ് അല്ലാണ്ട് നടക്കുവാണോ ആ അത് അത് സാറിപ്പം ഒരു ക്യാറ്റുകൾക്ക് വല്ലാണ്ട് ഏതോ ഒരു വൈറസ് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടേ ഹോസ്പ്പിറ്റലിലാണെങ്കിൽ തന്നെ മൂന്നാല് കേസ്കൾ ഇതുപോലേ കൊണ്ടന്നിടിടിയുണ്ട് അതിൽ അവർ പറയുന്ന പ്രശ്നമെന്താന്ന് വെച്ചാൽ ഇങ്ങനേ പൂച്ചകൾടേ രോമം വല്ലാണ്ട് കൊഴിയുകയും അവർ ഭയങ്കരമായിട്ട് ശർദ്ദിക്കൊക്കേ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനൊരിത് വരുന്നുണ്ട് അതിനിപ്പം ഹോസ്പിറ്റലിൽ വന്ന് ഇൻജെക്ഷൻ എടുത്ത് വിടുവാണ് ചെയ്യുന്നത് ഞാൻ എന്തായാലും ഒരു ടാബ്ലറ്റ് ഞാൻ എഴുതി തരാം അതൊന്ന് രണ്ട് ദിവസം പൂച്ചക്ക് വെള്ളത്തിൽ പാലിൽ അത് കലക്കീട്ടൊന്ന് കൊടുത്തോക്ക് പാൽ ആ ഓക്കേ എന്നാൽ ഞാനൊരു കുപ്പിമരുന്നും കൂടേ എഴുതാം അത് മാക്സിമം എങ്ങനേലും കൊടുക്കാൻ നോക്കണം അത് കൊടുത്തിട്ട് അത് കഴിക്കുന്നിലെങ്കിൽ അതിനൊന്ന് ഹോസ്പ്പിറ്റലിലേക്ക് കൊണ്ടുവാ ഹോസ്പ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ ഞാനൊരു ഇൻജെക്ഷൻ എടുക്കാമായിരുന്നു ഇപ്പം എല്ലാവർക്കും അതിന് ഇൻജെക്ഷൻ ആണ് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ഹോസ്പ്പിറ്റലിലേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവരല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇനി ഇങ്ങനേ മരുന്ന് കൊടുക്കാന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം ആ മരുന്നെഴുതാം നിങ്ങളതൊന്ന് കൊടുക്കാൻ പറ്റുവെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കേ അല്ലെങ്കിൽ നേരേ ഹോസ്പ്പിറ്റലിലേക്ക് വന്നാൽ ഇൻജെക്ഷൻ എടുത്ത് വിടാവുന്നതാണ് പിന്നേ പൂച്ച രണ്ട് ദിവസം കഴിഞ്ഞ് എന്താ അവസ്ഥ നോക്കീട്ട് നമുക്ക് ബാക്കി മരുന്ന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നൂലാ ഇപ്പോഴത്തെ വൈറസസ്സിൻ്റെ കുഴപ്പമാണ് അത് ഒരു ഇൻജെക്ഷനെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ടെൻഷൻ ആവണ്ട കാര്യൊന്നൂല്ലാ അതിന് മാക്സിമം എന്താ പറയാ മാക്സിമം ഫുഡ് നമ്മൾ കൊടുക്കുക അത് കഴിക്കുന്നില്ലെങ്കിൽ ഈ ഇൻജെക്ഷനെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ പിന്നേ എപ്പോഴും അതിൻ്റെ കൂടെ അതിനെ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ് കാരണം വൈറസസ്സാണ് അപ്പം അത് എപ്പോഴും അതിൻ്റെ ഓരോരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കേ ഹോസ്പ്പിറ്റലിലേക്ക് കൊണ്ടെന്നാൽ മതി ആ ഓക്കേ ടാങ്ക് യു